ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒമ്പത് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പത്ത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പതിനൊന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒണ്ണ് പന്ത്രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന്